എപ്പോൾ നടണം എങ്ങനെ നടണം എന്നുള്ളത് ഓരോ വിളകളെ ബെയ്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ തീരുമാനിക്കുന്നത് എന്താണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നേ അതു വച്ചിട്ടാണ് ഇപ്പം നെല്ല് നടണമെങ്കിൽ നെല്ല് നടുന്നൊരു സമയമുണ്ട് ആ സമയത്തെ നമുക്ക് നെല്ല് ഞാറ് വിതയ്ക്കാൻ പറ്റുള്ളൂ അതേപോലെ ഈ പിന്നെ മാർച്ച് മാസം ഒരു കുംഭം മേടം ആ മാസത്തിൽ അങ്ങനെയുള്ള മാസങ്ങളിലാണ് നമ്മൾ ചേനയൊക്കെ നടുക അപ്പം ഓരോ വിളകളും നടുന്നത് അതിന്റേതായ ഓരോ കാലാവസ്ഥയുണ്ട് ഓരോ മാസങ്ങളുണ്ട് പണ്ടുകാലം തൊട്ട് നമ്മുടെ കാർണവന്മാർ തൊട്ട് അതിങ്ങനെ കണ്ടിന്യു ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഇന്നിപ്പം വേണമെങ്കിൽ നമ്മളൊന്ന് വാങ്ങിച്ച് വേണമെങ്കിൽ കുഴിച്ചിടാം അതൊന്നും ഇതായിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ പച്ചക്കറി നടുമ്പം നമ്മൾ ശ്രദ്ധിക്കുമല്ലോ മഞ്ഞുമാസത്തിൽ പച്ചക്കറി നട്ടിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടാകും അതായത് ഒക്ടോബർ തൊട്ട് ജനുവരി ഫെബ്രുവരി മാസംവരെ പച്ചക്കറി വിളകൾ നമ്മൾ വീട്ടിൽ ചെറിയ അതായത് കിച്ചൻ ഒരു ഗാർഡൻ ഉണ്ടാകുമല്ലോ നമ്മൾക്ക് ചെറിയ പച്ചമുളക് വഴുതനങ്ങ പയർ അങ്ങനെ ഉള്ളത് അപ്പം അതൊന്നും മഴക്കാലത്ത് വച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ കാര്യമായിട്ട് ഉണ്ടാകില്ല അതൊക്കെ അതുകൊണ്ടാണ് ഓരോ മാസങ്ങളെ ബെയ്സ് ചെയ്ത് ഓരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് നമ്മൾ പിന്നെ ചെടികൾ അതായത് നമ്മുടെ വിളകൾ നടുക അപ്പം ഓരോ വിള നടുന്നതിന് അതിന് അനുയോജ്യമായ മാസവും കാലാവസ്ഥയും ഒക്കെ ബെയ്സ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മളിങ്ങനെ കണ്ടിന്യു ചെയ്ത് കാല കാലക്രമേണ ഈ അതായത് ജനറേഷൻ മാറുന്നതിനനുസരിച്ച് അവർക്ക് കൈമാറ്റം വരുന്നൊരു ഗിഫ്റ്റ് ആണത് ഒരു പിന്നെ നല്ലൊരു കാര്യമത് കണ്ടിന്യു ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ ഉപേക്ഷിക്കാതെ അടുത്ത തലമുറയിലേയ്ക്ക് വരുന്നു അടുത്ത തലമുറയിൽ നിന്നു പിന്നത്തെ തലമുറയിലേയ്ക്ക് വരുന്നു അതിങ്ങനെ കണ്ടിന്യു ആയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് നട്ടാൽ നല്ല വിള കിട്ടും എന്ന് ആണ് അതിനെക്കുറിച്ചുള്ള അങ്ങനെയാണ് നടുന്നത് കാരണം മഴക്കാലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടില്ലലോ അതുകൊണ്ട് ഓരോ സമയത്ത് ഇന്ന സ്ഥലത്ത് ഞാറ് ഇന്ന മാസം ഇന്ന ഇന്ന ദിവസങ്ങളിൽ അതായത് ഇന്ന മാസങ്ങളിൽ എന്നാണ് ദിവസങ്ങളിൽ ഇല്ല ഇന്ന മാസങ്ങളിൽ ഞാറ് വിതയ്ക്കുക അങ്ങനെയൊക്കെയാണ് അതേപോലെ ചേനയ്ക്കൊക്കെ ആണെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെയാണ് ചേന നടുക അതിനു മുമ്പ് ആ സമയത്ത് ചേന നട്ടാൽ നമ്മൾക്ക് ഓണത്തിന്റെ സമയമൊക്കെ ആവുമ്പോൾ പിന്നെ വിളയെടുക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ